നമ്മള് നമ്മൾക്ക് അറിയാവല്ലോ നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം അത് ഏത് ബ്രാൻഡായിരിക്കണം നമ്മള് ഉപയോഗിക്കുന്നതിന്നെല്ലാം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടല്ലോ പിന്നെ നമ്മള് അത് സുഹൃത്തക്കളുവായിട്ട് നമ്മള് പങ്ക് വെക്കുമ്പോൾ അവര് പറയുമല്ലോ അത് നല്ലതാണ് ഇത് നല്ലതാ അത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് പിന്നെ ആ കളറോടും ആ ഒരു സൈസിനോടും എല്ലാം നമ്മളും പ്രത്യേകിച്ച് താല്പര്യപ്പെട്ട് പോകാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓൺലൈനില് നോക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള പ്ര ഇത് കണ്ടിട്ടുണ്ടെങ്കില് നമ്മളത് ഓർഡർ ചെയ്യുന്നു അത് കിട്ടുന്നു ചില സമയങ്ങളിൽ അത് കറക്റ്റായിരിക്കും അല്ലെങ്കിൽ നമ്മളത് തിരിച്ചയച്ചു വിടാറുണ്ട് പിന്നെ കൂടുതലും എന്നാ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടായിരിക്കുമല്ലോ ഒന്നെങ്കില് വീട്ടിൽ നിന്ന് ആൾക്കാര് കാണും അല്ലെങ്കിൽ നമ്മള് സുഹൃത്തക്കളുടെ കൂടത്തിലായിരിക്കും പോകുന്നത് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഓരോ ഇത് കാണും ഓരോ പിന്നെ നമുക്കൊണ്ടല്ലോ ഓരോ ഇപ്പം സാരികളൊക്കെ ആണെങ്കിൽ പോലും അത് ഓരോ സൈസും എല്ലാം ഉണ്ടല്ലോ അപ്പം നമ്മൾക്കും നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന കളറുകളും നമ്മള് നമ്മളുടെ ശരീരത്തിന് യോജിച്ച ഒരു ഉടുക്കാനെളുപ്പമുള്ള ഒരു രീതിയിൽ ഇപ്പം സാരിയാണെങ്കിൽ പോലും അത് ഉടുക്കാനും എത്രയും പെട്ടെന്ന് ഉടുത്താലും ഉടുത്താലും നല്ലോണം ഒതുങ്ങി ഇരിക്കുന്ന സാരികളൊക്കെ ആകുമ്പോൾ അത് നമുക്ക് അതാണ് അതാണ് നമുക്ക് ഏറെ ഇഷ്ടമുള്ളത് അപ്പം പിന്നെ ഒരു പ്രാവശ്യം ഒരു ഇത് ഡ്രസ്സ് നമ്മള് വാങ്ങിച്ചിട്ടത് നല്ലതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീണ്ടും ആ സൈസ് തന്നെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മള് താല്പര്യപ്പെടാറുള്ളത് പിന്നെ വീട്ടിലാണെങ്കില് ഭർത്താവും കുട്ടികളും ഒന്നിച്ച് കൂടി ഡ്രസ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇത് ഇപ്പം ചേരുന്നതാണെന്ന് പറയുമ്പോൾ നമ്മളത് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അങ്ങനെ ആണ് പിന്നെ കുട്ടികള് നല്ലത് എവിടുന്നെങ്കിലും ഓർഡർ പിന്നെ ഓൺലൈനില് കണ്ടിട്ടുണ്ടെങ്കില് അത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടത് ഓർഡർ ചെയ്യാനും അത് വരുത്തി തരാനും ഒക്കെ അവർക്കിഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങിച്ച് തരാനും എല്ലാം കുട്ടികളും നമ്മളോടൊപ്പം ഉണ്ടാവും അങ്ങനെ എല്ലാം നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവരുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകള് ആണ ആണ് ഏറ്റവും ഉചിതം നമ്മള് ശരീരത്തിന് യോജിക്കാത്ത ഡ്രസ്സിട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് പോലും ആരാണെന്ന് മാറി പോകും അതാണ് ഒരവസ്ഥ അങ്ങനോരോ കാര്യങ്ങള് ആണ് പിന്നെ ഓരോ കമ്പനി സാധനങ്ങൾക്ക് അതിൻ്റേതായ ഗുണമേന്മയും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ഇപ്പം ഏതൊരു ഇതാണെങ്കിൽ പോലും അതിൻ്റേതായ ബ്രാൻഡഡ് സാധനങ്ങള് വാങ്ങിച്ചിട്ടുണ്ടെങ്കില് അതെന്താണെങ്കിൽ പോലും സാരിയാണെങ്കിലും അത് ചുരിദാറിൻ്റെ പീസുകളാണെങ്കിലും ചുരിതാ റ് ആണെങ്കിൽ പോലും എന്താണെങ്കിലും ഇന്നേഴ്സ് എല്ലാത്തിനും അതിന്റേതായ ഓരോ ബ്രാൻഡുകളുണ്ട് ബ്രൻഡുള്ള സാധനങ്ങള് ബ്രാൻഡഡ് സാധനങ്ങള് വാങ്ങിച്ചിട്ടുണ്ടെങ്കില് നമ്മള് സാദായ ഉപയോഗിക്കുന്നതിൽ കഴിഞ്ഞും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കാറുണ്ട് അപ്പം ബ്രാൻഡ് സാധനത്തിന് വില കൂടുതലുണ്ടാവും അത് നമ്മള് സഹിക്കുക എന്നത് നമ്മള് ഒരു സാധനം ഒരു മാസം ഉപയോഗിക്കുന്ന സാധനം ബ്രാൻഡഡ് സാധനമാണെങ്കില് മൂന്ന് മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങള് പോകുന്നത് പിന്നെ അവരവരുടെ ശരീരത്തിന് യോജിച്ചതും അവരവരുടെ അവരവർക്ക് ഇണങ്ങുന്ന ഡ്രസ്സുകളും തെരഞ്ഞെടുക്കുമ്പം നമ്മുടെ ഒരഭിപ്രായമുണ്ട് പിന്നെ സുഹൃത്തകളാണെങ്കില് അവരുണ്ട് അല്ലെങ്കില് വീട്ടിലുള്ള ഹസ്ബൻഡ് മക്കള് അവരെല്ലാവരും അങ്ങനെ ഓരോ അഭിപ്രായത്തിനുസരിച്ച് നമ്മള് വാങ്ങിക്കാൻ തയ്യാറാകുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഇപ്പം ഓൺലൈൻ വഴിയുള്ളത് മതിയെന്നോ അല്ലെങ്കില് കടകളിൽ ഷോപ്പിങ്ങ് മതിയെന്നോ അങ്ങനെയൊന്നുല്ല നമുക്ക് ഷോപ്പിങ്ങിൽ നിന്ന് നമ്മള് എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്ന ഷോപ്പിങ്ങ് നടത്തുമ്പോ കാണുന്ന സാധനം നമുക്കിഷ്ട്ടപ്പെട്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കും പിന്നെ ഓൺലൈനില് കിട്ടുവാണെങ്കില് അതങ്ങനെ വാങ്ങിക്കും അങ്ങനോരോ എന്നാ നമ്മള് ചെയ്യാറ് പതിവ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്നു പിന്നെ എത്രയാന്ന് പറഞ്ഞാലും നമ്മള് എടുക്കുന്ന ഡ്രസ്സിൻ്റെ ഡിസൈനും പാറ്റേണും നമുക്ക് ചേരുന്നതാണെങ്കില് മാത്രവാണ് നമുക്ക്തിനോടൊരു താല്പര്യം കൂടുതലുള്ളു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഒരേ ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിനും കംഫേർട്ടാണെന്ന് തോന്നുന്ന ഡ്രസ്സ് ധരിച്ചാൽ മാത്രം നമുക്കൊരു കംഫർട്ട് ഉള്ളു അല്ലാതെ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇറങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് എപ്പഴും മനസ്സിനൊരു ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളുവാണ്